എൻ്റെ സെക്കൻഡ് പ്രൊഡക്ട് ഡൈനിങ്ങ് ടേബിൾ ആണ് ഡൈനിംഗ് ടേബിളിൻ്റെ നെഗറ്റീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അത് പിന്നെ പർച്ചേസ് ചെയ്തത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതായത് ഫർണിച്ചർ അതായത് നല്ല തേക്കിൻ്റെ ഡൈനിങ്ങ് ടേബിൾ ആണ് പർച്ചേസ് ചെയ്തത് പക്ഷെ അതിൻ്റെ മുകളിൽ ഞാൻ ചില്ല് വെച്ചതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ബുദ്ദിമുട്ടായിട്ട് തോന്നിയത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ കുട്ടികളൊക്കെ ഉള്ള സ്ഥലമല്ലേ അപ്പം ചില്ലിന് അത്യാവശ്യം കട്ടി ഉണ്ടെങ്കിലും നമ്മൾ അതായത് എന്തെങ്കിലും ഒരു ഒന്ന് അതായത് വെയിറ്റ് ഉള്ള കാര്യങ്ങളും എന്തെങ്കിലും തട്ടിയിട്ടുണ്ടെങ്കിൽ അത് പിന്നെ പൊട്ടിപോകാനുള്ള സാദ്ധ്യത കൂടുതലാണ് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചതുരം ഉള്ളതല്ല എടുത്തത് ചതുരമുള്ളത് എടുക്കാത്തത് എനിക്ക് അത് വലിയൊരു പറ്റ് പറ്റിപ്പോയി അത് എന്താ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചതുരമുള്ളത് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് നമുക്ക് ആറ് കസേര ഇടാൻ പറ്റും പക്ഷെ ഇത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മറ്റേ ഒരു സൈസ് അതായത് സ്ക്വയർ ഷേപ്പിലുള്ള അങ്ങനത്തെ എടുത്തത് അങ്ങനത്തെ എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ സ്ഥലം നഷ്ടമാണ് അപ്പം അത് എനിക്കൊരു വലിയ നെഗറ്റീവ് ആയിട്ട് തോന്നി